രണ്ട് രണ്ട് രണ്ടായിരത്തി പതിനാല് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി പതിനാറ് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് ആറ് നാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ട് ആറ് രണ്ടായിരത്തി പതിമൂന്ന്